പതിനേഴ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് പത്ത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുപ്പത്തൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പത്ത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്